എനിക്ക് ഏറ്റവും ഇഷ്ടം നീന്തലാണ് ഞാൻ ചെറുപ്പം മുതലെ ഈ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു സ്കൂൾ ലെവലും അല്ലേൽ ഇങ്ങനെ പ്ലസ് ടൂ എയ് സെവൻത് എയ്ത്ത് നയൻത് ടെൻത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നീന്തലുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല ആരോഗ്യം ലഭിക്കാൻ വേണ്ടിട്ട് ഇന്നും കുളത്തിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിലേയ്ക്ക് തിരിച്ച് പോകണമെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല കുളത്തിലിറങ്ങിയാൽ പിന്നെ ഒരേ കുളിയും നീന്തലും കുളിയും നീന്തലും ഇതുതന്നെ പരിപാടി ഇപ്പം ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ അവിടുന്ന് വന്ന് നിലവിളിക്കും നീ കേറിയിട്ട് വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇത്രയും സമയം ആയോ കുളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ടെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുന്നത് തന്നെ അപ്പോൾ അത്രയും ഇഷ്ടമാണ് നീന്തലിനോട് എന്തുകൊണ്ടാന്നിപ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല ചെറുപ്പം മുതലേ ഈ കുളത്തിൽ നീന്തി പഠിച്ചിട്ടുള്ള ഒരു ശീലം കൊണ്ടായിരിക്കാം കുളത്തിലെ കുളിയും വെള്ളത്തിൽ വെള്ളത്തിനോടുള്ള ഇഷ്ടവും ഒരു ഒന്നൊന്നര രണ്ടുമണിക്കൂറൊക്കെ വെള്ളത്തിൽ എന്താ പൊതിർന്ന് പോകും എന്ന് പറയും അത്രയ്ക്ക് സമയം വേണമെങ്കിലും ഞാൻ നീന്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഇഷ്ടം ചെറുപ്പത്തിലെ ഇഷ്ടം കൊണ്ടാവാം ഏറ്റവും നല്ല കായികൻ ആയിട്ട് ഞാൻ സ്കൂൾ ലെവലിൽ എത്തിയപ്പോഴും പങ്കെടുക്കാൻ ആഗ്രഹിച്ചതും പങ്കെടുത്തതും ഒക്കെ നീന്തൽ മത്സരങ്ങളിൽത്തന്നെയാണ് അതിൽ ആ ഇഷ്ടം കൊണ്ടു തന്നെ ആയിരിക്കാം എനിക്ക് സബ്ബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനത്തിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റിയതും അതുപോലെ ഓട്ടം മത്സരങ്ങൾ ഇഷ്ടമാണ് പക്ഷേ നീന്തലിന്റെ അത്ര എനിക്ക് എന്തായാലും ഓടിയാൽ എത്തില്ലാന്നുള്ളൊരു ചിന്തയാണ് വെള്ളം എന്താ നമ്മളെ നമൂക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടേത് സഹായിക്കുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഓടാനും സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കണം അപ്പോൾ കൂടെയുള്ള ഞാൻ എൻ്റെ മക്കളെയും നീന്തൽ എന്തായാലും പഠിപ്പിച്ചിരിക്കണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നയാളാണ് ഓട്ടം മത്സരങ്ങളൊക്കെ പങ്കെടുക്കും പക്ഷേ അതിൽ അങ്ങനെ നീന്തലിൽ കിട്ടുന്ന അത്രയും സമ്മാനങ്ങളൊന്നും എനിക്ക് ഓട്ടം മത്സരത്തിലൊന്നും കിട്ടിയിട്ടില്ല അതാണ് സത്യം